മലയാളം തന്നെയാണ് പക്ഷെ എന്താ പറയുക അച്ചടി മലയാളം അല്ല എല്ലാവർക്കും അവരുടേതായൊരു ഭാഷയുണ്ട് നമുക്ക് നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഭാഷയിൽ വ്യത്യാസം ഉണ്ട് അപ്പോൾ എന്താ പറയുക അത് അങ്ങനെയാണ് മലയാള ഭാഷയാണ് മലയാള ഭാഷയ്ക്ക് തന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത ഒത്തിരി ഒത്തിരി ഭാഷകളും അതിൽതന്നെ വരുന്നുണ്ട് അപ്പോൾ വ്യത്യാസം എന്ന് എനിക്ക് തോന്നിട്ടൊന്നും ഇല്ല എന്നാലും സംസാരത്തിൻ്റെ രീതി ചില വാക്കുകളിലൊക്കെ വരുന്ന വ്യത്യാസം അത്രയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളു പ്രാദേശിക ഭാഷയാണ് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ മാതൃഭാഷയാണ് മലയാളം പക്ഷേ കേരളത്തിൽത്തന്നെ പതിനാല് ജില്ലയിലും ഒട്ടുമിക്ക സ്ഥലത്തും ഭാഷയിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് അത് നമ്മൾ സംസാരിക്കുന്ന രീതി ഓരോ വാക്കിന് ഇപ്പോൾ ഓമങ്ങ കപ്പ കപ്പളങ്ങ പപ്പായ കപ്പക്ക അങ്ങനെ നമ്മൾ പപ്പായയ്ക്ക് പറയും പല പേരുകൾ പൂള കപ്പ അത് കപ്പയ്ക്ക് പറയുന്നത് തന്നെയാണ് അങ്ങനെ ഓരോന്നിനും ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരുകൾ ചില വാക്കുകളിലെ വ്യത്യാസം അത്രതന്നെ ഉള്ളു